സാങ്കേതിക വിദ്യയിലെ പുരോഗതി ജീവിതം വളരെ ആയാസകരമാക്കിയിരിക്കുന്നു ജീവിതത്തിൻ്റെ പല തലങ്ങളിലുള്ളവർക്കും പല മേഖലയിലാണ് അവരുടെ ലൈഫ് കുറേ മെച്ചപ്പെടുത്തിയിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ പുരോഗതി പറഞ്ഞു വരുമ്പം സ്മാർട്ട് ഫോണുകൾ സ്മാർട്ടായിട്ടുള്ള മെഷീൻസ് വാഷിംഗ് മെഷീനും നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഫോണുകൾ അതുപോലെ ഉള്ള ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സുകൾ എല്ലാം എല്ലാം സാങ്കേതിക വിദ്യയുടെ പുരോഗതി മൂലം നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിലെളുപ്പമാക്കിയിരിക്കുവാണ് കുറേക്കൂടെ പണ്ടത്തെ ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി സമയാണ് നമുക്കിപ്പം ലഭിക്കുന്നത് പണ്ട് അവരൊരു ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുൻപിലെ കഷ്ടപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ദിവസങ്ങളുടെ അതായത് രണ്ട് ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ടിട്ടാണ് അവർ പിറ്റേ ദിവസം ദോശയുണ്ടാക്കുന്നത്

തലേ ദിവസം മാവ് അമ്മീ അമ്മിക്കല്ലിലിട്ട് ആട്ടി എടുത്ത് അരച്ച് ഇത് അരച്ച്

അമ്മിക്കല്ലേലിട്ട് ആട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ആ മാവെടുത്ത് എടുത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ അത് കലക്കി ദോശ ഉണ്ടാക്കുക ഇപ്പോൾ മിക്സി വന്നു മിക്സി വന്നു നമുക്ക് അത് അരയ്ക്കാൻ ഭയങ്കര എളുപ്പവാണ് അരി ഒക്കെ എടുത്തിട്ട് അതിൽ ഇടുക ജസ്റ്റ് അത് ഓൺ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് വേറെന്ത് വേണേലും ചെയ്യാൻ പോകാം ഒത്തിരി സമയമെടുക്കുന്നില്ല നിസാര സമയം കൊണ്ട് അതെല്ലാം അരച്ച് തീർത്ത് നമുക്കതെടുത്ത് വെക്കാം പിറ്റേ ദിവസം ദോശ ചുട്ടാൽ മതി ഇനി ദോശ ചുടാനാണെങ്കിൽ പോലും ഇപ്പം ഇലക്ട്രോണിക് മെഷീനുകളുണ്ട് ജസ്റ്റ് മാവ് ഒരു പാത്രത്തിൽ ഫിൽ ചെയ്ത് വെച്ചാൽ മാത്രം മതി ആവശ്യാനുസരണം ദോശ ഉണ്ടായി വരുന്നതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു സ്വിച്ചിട്ടാൽ നമുക്കെത്തുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഈ സ് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾ അതുപോലെ എന്തോന്ന് പറഞ്ഞാൽ ഫുഡ് പ്രിപ്പേയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ ഫുഡ് പ്രിപ്പേയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്തൊക്കെ ഫുഡാണ് കഴിക്കാവുന്നത് എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പാടില്ലാത്തത് ഹെൽത്തെങ്ങനെ നോക്കണം എല്ലാം ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആരുടെ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉപദേശം നമ്മൾ നോക്കി പോകുന്നതിലും എത്രയോ ജനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് സ്മാർട്ട് ഫോൺസ് വന്നതോടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ വാഷിംഗ് മെഷീൻ തുണിയലക്കുന്ന സംഭവങ്ങൾ അങ്ങനെ എല്ലാം നിസാര സമയം കൊണ്ട് നമ്മുടെ എല്ലാ പണികളും വീട്ടിലത്തെ ജോലികൾ തീർക്കുന്നു എന്തേലും വർക്കിന് പോകുന്നവർക്ക് പോകാനും ഒക്കെ വളരെ നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയാക്കി ഇരിക്കുകയാണ് സാങ്കേതികവിദ്യ അതുപോലെ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റോബോട്ട്സ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതും കൂടെ വന്ന് കഴിയുമ്പോഴത്തേന് മനുഷ്യന് സത്യം പറഞ്ഞാൽ വർക്കൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല എല്ലാം പിന്നെ എല്ലാം അവർ തന്നെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊള്ളും

ടാക്സി ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു അഡ്മിഷനെടുക്കാന് അതുപോലെ സ്കൂളുകളിൽ അഡ്മിഷനെടുക്കാൻ വണ്ടികളിലേ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പിന്നെ പഠനത്തിന് ക്ലാസ്സുകൾക്ക് എല്ലാം സാങ്കേതിക വിദ്യകളുടെ പുരോഗതി കാരണം നമുക്കെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരവസ്ഥയിലേക്കെത്തിയിരിക്കുന്നു കുട്ടികൾക്കാണേൽ ഇപ്പം പണ്ടൊക്കെ ട്യൂഷനെടുക്കുന്നത് ടീച്ചേഴ്സാണ് ഇപ്പോൾ ട്യൂഷനൊന്നും ടീച്ചേഴ്സിനേയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല ഒരു ഫോൺ മാത്രം ഉണ്ടായാൽ മതി ആ ഒരു അവസ്ഥയിലേക്കെത്തിയിരിക്കുന്നു പിന്നെ എന്താണ് പിന്നെ വണ്ടികൾ ഈവൻ വണ്ടികൾ പോലും നമുക്ക് ഇപ്പോൾ ഓടിക്കേണ്ട കാര്യം വരുന്നില്ല ഓട്ടോമാറ്റിക്കാണെല്ലാം എന്ന് പുതിയ വണ്ടികൾ ഇറങ്ങുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കാണ് നമുക്കോടിക്കണ്ട ആവശ്യങ്ങൾ വരുന്നില്ല